തൃശ്ശൂർ ജില്ലയെന്നു പറയുന്നത് ഇപ്പം നമ്മൾ കേട്ടുവരുന്ന ന്യൂയോർക് സിറ്റി ലണ്ടൻ എന്നൊക്കെ പറഞ്ഞു കേട്ട് വരുന്ന പലെ സ്ഥലങ്ങളുണ്ടല്ലൊ അതുപോലെതന്നെ ഏറ്റവും കൂടുതൽ വികസിച്ച സ്ഥലങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയെന്നു പറയുന്നത് കേരളത്തിലെ മറ്റ് ഏത് ജില്ല എടുത്തു നോക്കിയാലും തൃശ്ശൂർ ജില്ലയുടെ വികസനമെന്നു പറയുന്നത് എടുത്തു പറയേണ്ടതു തന്നെയാണ് തൃശ്ശൂർ ജില്ലയെന്നു പറയുന്നത് ഏത് ഒരു വിഷയത്തിലായാലും കല സാംസ്കാരികം കായികം അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനം അ അത്തരം ഒരുപാട് കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് തൃശ്ശൂർ ജില്ലയെന്നു പറയുന്നത് ഏറ്റവും കൂടുതൽ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ഏറ്റവും കൂടുതൽ കായിക പരമായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എന്ത് പറയുക കളിയാക്കി പറയുന്നതല്ല എന്നാൽ ക്കൂടി ഏറ്റവും കൂടുതൽ ആന പ്രേമികളുള്ള ഒരു സ്ഥലമാണ് തൃശ്ശൂർ ജില്ല ഏറ്റവും സ്ത്രീകൾക്ക് ഏത് എവിടെയും എങ്ങനെയും സംസാരിക്കാൻ ആവാ അവസരവും അവസരങ്ങളൊരുക്കിക്കൊടുക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ലയെന്നു പറയുന്നത് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്ക നോക്കുമ്പം തന്നെ എല്ലാ സൗകര്യങ്ങളുമുള്ള കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നമ്മളുടെ നാട്ടിൽ തൃശ്ശൂരിലുണ്ട് അതുപോലെ തന്നെ സ്ത്രീകൾക്കാവശ്യമായ സ്വകാര്യത ആവശ്യപ്പെടുന്ന അമ്മമാർക്ക് ആവശ്യ കുട്ടികൾക്കു പാലുകൊടുക്കുന്ന അമ്മമാർക്കാവശ്യപ്പെടുന്ന സ്വകാര്യത തൃശ്ശൂർ ജില്ലയിൽ ഓരോ മുറികളായി എവിടെ ആയാലും ഒരു ഒരു സമൂഹത്തിൽ ചെന്നിറങ്ങുമ്പം ഒരമ്മക്ക് കുട്ടിക്ക് പാലു കൊടുക്കണമെന്നു പറയുമ്പം അതിനൊരു അതിനൊരു സ്ഥലം തൃശ്ശൂർ ജില്ലയിലെവിടെ ആയാലും അത് ലെഭ്യമാണ് സ്ത്രീകൾക്ക് ബാത് എന്താ പറയുക അവരുടെ ചില ദിവസങ്ങളിലാവശ്യം വരുന്ന പാഡ്ഡ് അതുപോലെ ഉള്ള കാര്യങ്ങൾ ലഭ്യതയും ഇവിടെ ഏറ്റവും കൂടുതൽ തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളിലും പിന്നോക്കമുണ്ടോ എന്നു ചോദിച്ചാലതും ഉണ്ട് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ വില്പന തൃശ്ശൂർ വളരെ കൂടുതലാണ് അത് തൃശ്ശൂരിൽ എടുത്തു പറയേണ്ടത് തന്നെ ആയിട്ടുള്ള ഏറ്റവും മോശമായ ഒരു അഭിപ്രായം തന്നെയാണ് ലഹരി വസ്തുക്കളുടെ വില്പന തൃശ്ശൂരിലേറ്റവും കൂടുതലാണ് അതു കുറയ്ക്കാനുള്ള പല നീക്കങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷെ എന്നാൽക്കൂടി അതിൻ്റെ അതിനു വളർച്ച അതു പരസ്യമായി കൈമാറുന്നുവെന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അതും അ അത് അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതു കുറയ്ക്കാനും നീക്കങ്ങളെടുത്തു കൊണ്ടിരിക്കുന്നുണ്ട്